ഇന്ത്യയിലെ ഭക്ഷണം എന്ന് പറയുമ്പത്തേക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പത്തേക്ക് ചപ്പാത്തി വരും റൈസ് വരും പിന്നെ മസാലകൾ എന്ന് പറയുമ്പത്തേക്ക് ഗരം മസാല മുളക്പൊടി മല്ലിപ്പൊടി ഇതൊക്കേന്ന് പറയുമ്പത്തേക്ക് ബേസിക്കായിട്ട് ഉള്ള സാധനം പിന്നെ ഇന്ത്യേലേക്കെന്ന് പറയുമ്പത്തേക്ക് മെയ്നായ്ട്ട് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷനുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ പറയുമ്പത്തേക്ക് സൗത്തിന്ത്യയിലാൾക്കാര് മെയിൻ ആയിട്ട് കഴിക്കുന്നത് ചോറാണ് അപ്പം അതിൻ്റെ പ്രൊഡക്ഷനും എന്നാ നമ്മുടെ തമിഴ്നാടില് വളരെ കൂട്തലായത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ഇതിൻ്റെ മെയിൻ ആയിട്ട് സൌത്ത് ഇന്ത്യയിലേക്ക് ഫുള്ള് കൊടുക്കുന്നത് പിന്നെ ചോറ് ചോറിനിപ്പം ഉച്ച സമയങ്ങളിൽ ചോറ് കഴിക്കുന്നവരുണ്ട് രാത്രി ചോറ് കഴിക്കുന്നവരുണ്ട് രാവിലെയും ചോറ് കഴിക്കുന്നവരുണ്ട് അപ്പം ഈ ചോറെന്ന് പറയുന്ന സാധനം ഒരുപാട് കഴിക്കുമ്പത്തേക്ക് നമുക്ക് ഷുഗറൊക്ക്ണ്ടാവ്ന്നാണ് പക്ഷേ എന്നാൽ പോലും എസ്പെഷ്യലി മലയാളികൾക്ക് ചോറെന്ന് പറയുന്ന സാധനമൊരു വികാരമാണ് അവർക്ക് എപ്പം വേണേലും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും അവർക്ക് ഡെയ്ലി ഡെയ്ലി ഇത് കഴിച്ചോണ്ടിരിക്കുന്നവർക്ക് ഉണ്ട് ഈ സൗത്തിന്ത്യേലേക്കെന്നൊക്കെ പറയുമ്പത്തേക്ക് പിന്നെ ചില കല്ല്യാണങ്ങള് കല്ല്യാണ വീട്കളിലോ അല്ലേൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സൗത്തിന്ത്യേല് മെയ്ൻലി ഫുഡെന്ന് പറയുന്നത് ചോറാണ് ഉച്ച സമയങ്ങളിൽ ഒക്കെ കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ ഇപ്പം നമ്മള് നമ്മളിപ്പം നോർത്തിന്ത്യേലേക്ക് പോകുമ്പത്തേക്ക് ഒരു മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ചപ്പാത്തിയും കിഴങ്ങുവാണ് അല്ലേ ചപ്പാത്തിയും പരിപ്പ്കറിയാണ് അതപ്പം അവർക്ക് നമുക്ക് സൗത്തിന്ത്യൻസിന് ചോറെന്ന് ഉള്ളത് പോലെ നോർത്ത് ഇന്ത്യൻസിന് ചപ്പാത്തി എന്ന് വെച്ചാൽ അവർക്കൊരു വലിയ വികാരമാണ് അതിപ്പം അവര് ചപ്പാത്തി ഒന്നെങ്കിൽ കിഴങ്ങ് കൂട്ടി കഴിക്കും കിഴങ്ങ് കറി കൂട്ടി കഴിക്കും അല്ലേൽ ദാൽ പരിപ്പ് കൂട്ടി കഴിക്കാവുന്നതാണ് അവർക്ക് മെയിൻ ആയിട്ട് അതാണൊരു ഫേവറേറ്റ് ഭക്ഷണം എന്ന് പറയുന്നത്

പിന്നെ അത് കൂടാതെ തന്നെ പലതരം വിഭവങ്ങളുണ്ട് ചപ്പാത്തിൽ ഞാൻ ബട്ടർ നാൻ അല്ലേൽ ഗാർലിക് നാൻ അല്ലെങ്കിൽ സാധാ നോർമൽ ചപ്പാത്തി അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിൻ ആയിട്ട് നോക്കുമ്പത്തേക്ക് അവരുടെ ഒരു കല്യാണമോ അല്ലേൽ എന്തേലും ഫെസ്റ്റാവ്മ്പത്തേക്കവർക്ക് ചപ്പാത്തികളിൽ തന്നെ കുറെ വെറൈറ്റീസുണ്ട് അവരതൊക്കെ കഴിച്ചാണ് എല്ലാം ചെയ്യുന്നത് പിന്നേ നേരത്തേ പറയാൻ വിട്ട്പോയൊര് കാര്യം എന്താന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻസിന് ചോറുകളിൽ പലതരം വിഭ വിഭവങ്ങളുണ്ട് ഇപ്പം എല്ല റൈസിനെ കുറെ ഡിവിഷനുണ്ട് ബസ്മതി റൈസ് അപ്പം ബിരിയാണി റൈസ് അപ്പം അങ്ങനത്തെ ഇതൊക്കെ എന്ന് പറയുമ്പത്തേക്ക് അവർക്ക് ഇപ്പം ഈ റൈസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് കുറെ ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ലെമൺ റൈസ് ബിരിയാണി റൈസ് റ്റൊമാറ്റോ റൈസ് അപ്പം തമിഴ്നാടുകളിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ അല്ലെൽ സൗത്ത് ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റിൽ ചെല്ലുമ്പത്തേക്കവർക്ക് കുറെ ടൈപ്പ് റൈസ്കളും എല്ലാവരും കഴിച്ചാണ് അവരുടെ ഫെസ്റ്റിവലിലോ ഫെസ്റ്റിനും എല്ലാ ഒക്കെ കൊടുത്തിട്ടാണവര് ഇരിക്കുന്നത് പിന്നെ അത് കൂടാത തന്നെ എന്നാ ഇപ്പം മസാലകൾ ഇപ്പം ഇന്ത്യയിൽ പൊതുവെ എല്ലാവരും ഒരുപാട് മസാല യൂസ് ചെയ്താണ് വല്ല കറികളിലൊര്പാട് മസാല ആഡ് ഓൺ ചെയ്താണ് ജീവിക്കുന്നത് ബാക്കി ഉള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പത്തേക്ക് ഇന്ത്യയിൽ ആണ് ഏറ്റവും കൂടുതൽ സ്പൈസ് എരിവ് യൂസ് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ എന്നാ ഇപ്പം കുറെ അത്ലെറ്റ്സും അല്ലെങ്കിൽ ആക്റ്റേസും ഒക്കെയാണ് ഇപ്പം ഈ മസാല അത്ര ഹെൽത്തിയല്ലന്നും അവരപ്പം മസാല ഒന്നും അധിക യൂസ് ചെയ്യാതെ ചിലവര് ഫുഡ് ബോയിൽ ചെയ്തെടുത്ത് തിന്നിന്നേക്കെ കണ്ടിട്ടിപ്പോൾ കുറെ ആൾക്കാർക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുറെ പേർക്കതങ്ങോട്ട് പറ്റുന്നില്ല കാരണം മസാലയുടെ ടേസ്റ്റ് കുഞ്ഞിലെ തൊട്ട് കഴിച്ച് കഴിച്ചെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇപ്പം ഇത് ഒരുമാതിരി അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട് ഉണ്ട് ഇപ്പം ഗരംമസാല മീറ്റ് ചിക്കൻ മസാല മുളക് പൊടി മല്ലി പൊടി കുരുമുളക് പൊടി ഇതൊക്കെ മിക്കവരും മീറ്റിന് വേണ്ടി യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്തേലും കറി ഉണ്ടാക്കാ യൂസ് ചെയ്യും അല്ലേൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർലിക് നാനിലൊക്കെ ഇങ്ങനത്തെ മസാലൊക്കെ യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്ക ഇപ്പം ഇന്ത്യയിൽ റെയർ എന്നൊന്നും പറയാതെ റെയർ എന്നൊന്നും അല്ല പറയണ്ടേ വളരെ ഇതായിട്ടാണ് എന്നാ വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് മസാല കൊണ്ട് എല്ലാവരുടെയും വീടുകളിലിപ്പം മസാല വെച്ചുള്ള കറികളേ കാണത്തുള്ളു യാതൊര് പ്രശ്നങ്ങളോ അല്ലേൽ യാതൊരുവിധ അവരിപ്പം അവര് ഓർക്കുന്നത് എന്നാ ഇനി യാതൊര് പ്രശ്നങ്ങളൊന്നും കാണത്തില്ലെന്നാ പക്ഷേ ഭാവിയിലേക്കാണ് ഇത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളും അപ്പം ഇതൊക്കെ ഒര് ലിമിറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡായിട്ടോ കഴിക്കുവാണെങ്കിൽ യാതൊര് പ്രശ്നവും ഇല്ല ഈ മസാലയൊക്കെ എന്തും കൊണ്ടാ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്നും അറിയത്തില്ല നമ്മള് അതിനെ കുറിച്ചൊന്നും തപ്പത്ത് പോലും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ മസാലകളുടെ ഓവർ യൂസ് കാരണം കുറെ പേര് മരിച്ച് പോയും അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ ആൾക്കാരത്ര വിലയോ അങ്ങനൊന്നും കൊടുക്കാറില്ല അതിപ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും പിന്നെ അത് കൂടാതെ തന്നെ നമുക്കിപ്പം എന്നാ പറയണ്ടേ ഇപ്പം ഇന്ത്യ മൊത്തത്തോടെ എടുക്കുമ്പത്തേക്ക് ഒര് ഡിവിഷനില്ല നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷനില്ലാതെ എടുക്കുമ്പത്തേക്ക് എന്നാ ഫുഡിന് വ്യത്യാസം വന്നാലും മസാലകൾക്കൊന്നും വലിയ വ്യത്യാസം വരത്തില്ല കാരണം എല്ലാവരും നോർത്ത് ഇന്ത്യൻസാവട്ടെ സൗത്ത് ഇന്ത്യൻസാവട്ടെ ഈക്വലി മസാല യൂസ് ചെയ്യുന്നവരാണ് ഗരംമസാലയാട്ടേ അല്ലെങ്കിൽ എരുവാകട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മല്ലിപ്പൊടിയാട്ടെ അതൊക്ക അവര് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരാണ് യാതൊരു വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നത് ഉണ്ടാകുന്നില്ല പിന്നെന്നാ പറയുന്നത് വെച്ചാല് പിന്നെ നോർത്തിന്ത്യൻസിൻ്റെ ഭക്ഷണമെന്ന് പറയുമ്പത്തേക്ക് അതിൻ്റെ അകത്ത് ബട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്ക വളരെ കൂടുതൽ ആയത്കൊണ്ട് തന്നെ അവരുടെ അത്യാവശ്യം പ്രശ്നമുള്ളൊര് ഭക്ഷണ രീതി എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ സൗത്തിന്ത്യൻസിൻ്റെ ഒര് ഭക്ഷണമെന്ന് പറയുമ്പത്തേക്ക് ബീഫങ്ങനത്തെ സാധനമൊന്നും നോർത്തിന്ത്യൻസ് കഴിക്കത്തില്ല അവർക്കതത്ര ഇന്ന് ഇഷ്ടവുള്ള കാര്യമൊന്നും അല്ലാത്തതിനാൽ അവർക്കങ്ങനെ ഒരുപാട് ഫാറ്റ് ഉള്ള ബീഫോ അല്ലെങ്കിൽ മീറ്റോ അങ്ങനെ അവരങ്ങനെ യൂസ് ചെയ്യത്തില്ല അവര് കൂട്തലും ചിക്കൻ അല്ലെങ്കിൽ വെജ്ജാണവര് കൂടുതൽ യൂസ് ചെയ്ത് കഴിക്കാറ് പിന്നെ എന്താണ് ഇതില് വരുന്നതെന്ന് വെച്ചാല് സൗത്തിന്ത്യൻസിന് പൊതുവെ ചൊറിൻ്റെ കൂടെ മീൻ വളരൊരു പ്രിയപ്പെട്ട ഒര് ഭക്ഷണമാണ് കഴിക്കാൻ സൈഡായിട്ട് ഇപ്പം ഇങ്ങനെ ഒക്കെ പറയുമ്പത്തേക്ക് ഇപ്പം നല്ല തിക്ക് റൈസും നല്ല ചില്ലി പൗഡറിട്ടതെന്ന് പറയുമ്പത്തേക്ക് മീൻകറി എന്നൊക്കെ പറയുമ്പത്തേക്ക് സൗത്തിന്ത്യൻസിൻ്റെ പൊതുവേ അതൊരു ഭയങ്കര ആവേശമുള്ള ഭക്ഷണമാണ് ഇപ്പം അതിൻ്റെ അകത്തെന്നു പറയുമ്പത്തേക്ക് തിക്ക് ചില്ലി പൗഡർന്നൊക്ക പറയുമ്പത്തേക്ക് മസാലയുടെ അളവ് കൂട്തലാണപ്പം അതവർക്ക് കുറെ അസുഖങ്ങളൊക്ക കൊണ്ട് വരാൻ അല്ലെങ്കിൽ വരാൻ സാധ്യത കൂടുതൽ ഉള്ളൊരു ഇതാണ്